ഒരു പുസ്തകം ഞാന് ഇത്ര നേരം കൊണ്ട് വായിച്ചു തീര്ക്കണം എന്ന് വെച്ച് വായിക്കാറില്ല ഓരോ പുസ്തകവും എത്രത്തോളം എന്നെ സ്വാധീനിക്കുന്നു അതിനനുസരിച്ചാണ് ഞാന് വായിക്കാറ് ചില പുസ്തകങ്ങള് എന്നെ ഒറ്റയിരിപ്പില് വായിച്ചു തീര്ക്കാന് നി പ്രേരിപ്പിക്കും അങ്ങനെ ചില പുസ്തകങ്ങളില് ഒന്നാണ് ഹാരി പോട്ടര് വേറെ വേറെ പല പുസ്തകങ്ങള് ഉണ്ടെങ്കിൽ പോലും ഇപ്പോള് എന്റെ മനസ്സില് വന്നത് ഈ ഒരു പേരാണ് ചെറുപ്പത്തില് ഈയൊരു പുസ്തകം വായിക്കാന് വേണ്ടി കാത്തിരുന്ന് അവസാനം കിട്ടിയപ്പോൾ ആകാംക്ഷ കാരണം ഒരു രാത്രി മൊത്തമിരുന്നു ഇത് വായിച്ചു തീര്ത്തത് എനിക്കിപ്പോള് ഓര്മ വന്നു ഈ ഒരു പുസ്തകം വായിക്കുമ്പോള് നമ്മള് വേറെയൊരു ലോകത്ത് എത്തിപ്പെട്ട ഒരു അവസ്ഥയാണ് ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ ടെന്ഷനും ദുഃഖവും എല്ലാം മാറി ഹാരി എന്നൊരു വി കുട്ടിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോള് കിട്ടുന്നത് കുറ്റാന്വേഷണ കഥകളും ത്രില്ലെര് കഥകളും എനിക്ക് ഇതുപോലെ ഒറ്റയിരുപ്പില് വായിച്ചു തീര്ക്കാന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ജോണറുകളാണ് മിനിമം ഒന്നോ രണ്ടോ ദിവസം കൊണ്ടുതന്നെ ഇങ്ങനെയുള്ള പുസ്തകങ്ങള് ഞാന് വായിച്ചു തീര്ക്കാന് ശ്രമിക്കാറുണ്ട് അത് ആകാംക്ഷ കാരണമാണെന്ന് മാത്രം അല്ലാതെ പുസ്തകം വേഗം വായിച്ചു തീര്ക്കാന് വേണ്ടിയല്ല ഞാന് ഈ പുസ്തങ്ങള് ഈ മാസം വായിക്കണമെന്ന് ഒരു ടൈം ടേബിളിട്ട് വായിക്കുന്ന കൂട്ടത്തിലല്ല ഒരു വായനശാലയില് പോകുമ്പോള് എന്നെ കണ്ണിലുടുക്കുന്ന ഓരോ പുസ്തകവും ഞാനെടുക്കും അതൊന്നു വായിച്ചു നോക്കും അതിന്റെ പേജുകള് ഒന്നു മറിച്ചു നോക്കും അതെന്നെ സ്വാധീനിക്കുവാണെങ്കില് ഞാന് അത് വീട്ടിലേക്കെടുക്കുകയും വീട്ടിലെത്തി അതു എന്നെ ഞാന് വായിക്കുകയും ചെയ്യും ചിലപ്പോള് ആ പുസ്തകം എന്നെ അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെങ്കില് ഞാന് ഒരു രാത്രി മൊത്തം ഇരിക്കും അത് വായിച്ചു തീര്ക്കുകയും ചെയ്യും അല്ലാ എന്നെ അത്ര സ്വാധീനിക്കാത്ത പുസ്തകമാണെങ്കില് ഞാന് കുറച്ചീശ്ശെ കുറച്ചീശ്ശെ വായിച്ച് മിനിമം ഒരാഴ്ച കൊണ്ട് അത് തീര്ക്കാന് ശ്രമിക്കും എന്നിട്ട് വീണ്ടും വായനശാലയില് പോയി വേറെയൊരു പുസ്തകം എടുക്കുകയും ചെയ്യും ഞാന് ഇന്ന ലാംഗ്വേജ് വായിക്കും എന്നൊന്നുമില്ല മലയാളമായാലും ഇംഗ്ലീഷായാലും ഹിന്ദിയായാലും എല്ലാ ഭാഷയില് നിന്നും പുസ്തകങ്ങള് ഞാന് വായിക്കാറുണ്ട് വായനശാലയില് ചെല്ലുമ്പോള് എനിക്ക് വായിക്കാന് തോന്നുന്ന പുസ്തകമെടുത്ത് വായിച്ചു നോക്കും അത്ര ഇഷ്ടപ്പെട്ട ബുക്കാണെങ്കില് കൂടുതലും ഞാൻ അവിടെ തന്നെ ഇരുന്നു വായിച്ചു തീര്ക്കാന് ശ്രമിക്കും